ആളുകള് പട്ടണങ്ങളിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് യുവതലമുറ അവർക്ക് അനുയോജ്യമായ ജീവിതപങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊരു തോന്നൽ എനിക്കില്ല കാരണെന്താന്നുവെച്ചാല് പട്ടണങ്ങളിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നതു കൊണ്ടെങ്ങനെയാണ് ജീവിതപങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുന്നുന്നത് എന്നുള്ളത് തമ്മില് ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു കൂടുതല് അത് എന്തെന്ന് വളരെ അനുയോജ്യമായ ഒരു പങ്കാളിയെ കിട്ടാനൊരു അവസരം കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ശെരിക്കും ഇങ്ങനെ പട്ടണങ്ങളിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നതുകൊണ്ട് പട്ടണങ്ങളാകുമ്പോൾ കൂടുതൽ അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ച് വിദ്യാഭ്യാസത്തിനനുസരിച്ച് അതേ ചിന്താഗതിയുള്ള ആളുകളെക്കെ കിട്ടാന് നഗരങ്ങളിലാവുമ്പോൾ കൂടുതൽ സാധ്യത വരികയാണ് ഗ്രാമങ്ങളിലായിരുന്ന സമയത്ത് പണ്ടത്തെ സമ്പ്രദായികമായ രീതിയില് ഇങ്ങനെ അറേഞ്ചായിട്ടുള്ള മാരേജ് ആയിരുന്നു കല്യാണങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പരിചയപ്പെടാനോ പരസ്പരം അവനവൻ്റെ എന്താണ് താല്പര്യങ്ങൾ ഒരുപോലെയുള്ളതോന്നും നോക്കുകയില്ല ഈ ജാതകം കുടുംബ മഹിമ ഇതൊക്കെ വച്ച് മാത്രമെ ജീവിതപങ്കാളിനെ നോക്കുക ഗ്രാമങ്ങളിലൊക്കെ പട്ടണങ്ങളിൽ ഇതൊന്നും ഇല്ലാന്ന് അല്ല അവിടെ കുറച്ചുംകൂടെ ഒരു തുറന്നൊരു സ്ഥലമുണ്ട് നമുക്ക് നമ്മുടെ അതേ താല്പര്യമുള്ള ആളുകളെ കണ്ടെത്താൻ കുറച്ച് അവസരം പട്ടണങ്ങളിലുണ്ട് ഗ്രാമങ്ങളാവുമ്പോൾ ഈ അവസരങ്ങൾ കുറവാണ് അപ്പം അതുകൊണ്ട്തന്നെ എന്താണ് യുവതലമുറയ്ക്ക് അനുയോജ്യമായ പങ്കാളിയെ കിട്ടാനും പ പട്ടണങ്ങളിൽ താൽ ജീവിക്കാൻ താൽപര്യപ്പെടുന്നത് കൂടുതൽ അവസരങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്